ഇപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ നമ്മുടെ കേരളം ഒന്നൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് കൊ കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട് കാരണം ടെക്കനോളജി ആയിട്ടും എഡ്യൂക്കേഷണലായിട്ടും നമ്മുടെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എഡ്യൂക്കേഷണലായിക്കോട്ടെ നമ്മള് അതില് വിദ്യാഭ്യാസത്തിലാണെങ്കിലും എന്താ പറയുക കൂടുതൽ നിക്ഷേപണം നടക്കുന്നുണ്ട് കുറേ കോളേജ്കൾ വരുന്നു കോളേജ് സ്കൂളുകള് വരുന്നു അങ്ങനെ കുറേ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്സ്ൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിട്ട് കുറേ സംഭാവനകൾ ചെയ്യുന്നുണ്ട് നിക്ഷേപണങ്ങൾ നടത്തുന്നുണ്ട് അവര് കുറേ ലാഭങ്ങൾ കൊയ്യുന്നുണ്ട് വിപണിയിലുള്ളവർ പിന്നെ തുണി തുണിയുടെ വ്യവസായം പറയുമ്പോൾ തുണി വ്യവസായം പറഞ്ഞാൽ ഇപ്പോൾ കുറേ അതിൻ്റെ പ്രോസസ്സ് തുണി ഉണ്ടാക്കുന്നതിൻറെ പ്രോസസ്സ് അവിടുന്നു പിന്നെ നമ്മള് ഈ സാരി ഡ്രസ്സ് അങ്ങനെ ഉണ്ടാക്കുന്നതിൻറെ പ്രോസസ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ വിപണികളുണ്ട് ടെക്സ്റ്റൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിലൊക്കെ കുറേ ജോബ് ഓപ്പർച്യുണിട്ടീസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഈ ഇതൊക്കെ നമുക്കിപ്പം ടെക്നോളജിയിൽ ആയിക്കോട്ടെ എല്ലാത്തിലും ഇപ്പോൾ നമ്മുടെ കേരളം മുന്നിട്ടുവരികയാണ്